ആർക്ക് വേണേൽ കയ്യോ കാലോ ഒടിഞ്ഞാൽ ഉടനെ നമ്മള് ഹോസ്പിറ്റലിൽ എങ്ങനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്രയും വേഗം എങ്ങനെ എത്തിക്കാമെന്നാലോചിക്കും നമുക്കറിയാവുന്ന ആൾക്കാര് ഇന്നത്തെ കാലത്ത് ഫോൺ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മള് വിളിച്ച് ആരെങ്കിലും വിളിച്ച് ഒരു ഓട്ടോയോ കാറോ എന്തെങ്കിലും കിട്ടും നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുള്ള വണ്ടിയിൽ എവിടെയാണെന്ന് വെച്ചാൽ ആ ആ സാഹചര്യമനുരിച്ച് നമ്മള് വിളിച്ച് പെട്ടെന്ന് നമ്മള് ഹോസ്പിറ്റലിലെത്തിക്കും അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഏറ്റവും ആദ്യം എത്തിക്കും അവിടെ ചെന്നിട്ട് എക്സ്റേ എടുക്കണേൽ എക്സ്റേ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് നമ്മള് റെഫർ ചെയ്യുക അവര് റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മള് പോകും അല്ലെങ്കിൽ അവിടെത്തന്നെ തീരാനുള്ള പ്രശ്നങ്ങളെ ഉള്ളുവെങ്കിൽ നമ്മളവിടെ തന്നെ തീർക്കും അത് പിന്നെ അതിന് അപ്ഡേറ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തിരുമുന്ന കാര്യങ്ങൾ ആണെങ്കിൽ ഇപ്പം നാട്ട് വൈദ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അവരുടെ അടുത്ത് തിരുമി ശരിയാക്കാൻ ഭേദമാക്കുന്ന ഉളുക്ക് ചതവ് അങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇപ്പം കയ്യോ കാലൊക്കെ ഒടിഞ്ഞാല് നോർമലി നമ്മള് എക്സറേ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണ് അതിന് നല്ലത് മുറിവൈദ്യന്മാരുടെ അടുത്ത് കാണിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അതിന് വേണ്ടി ചികിത്സിക്കുക എന്നുള്ളതാണ്